ഏട്ടാ എ സി കാണിക്കു എ സി ആ അത് പറയുമ്പോൾ റൂമൊക്കെ ചെറുതാണ് അപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയുള്ളതാണ് വാങ്ങിക്കേണ്ടത് ആ ആ മതി മതി ഓക്കെയാണ് ബഡ്ജറ്റ് എങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും വില കുറവുള്ളത് ഏതാണ് അത് അതു കഴിഞ്ഞിട്ട് അതെങ്ങനെയാണ് അതിൻ്റെ അതേതാണ് ബ്രാൻ്റ് ഏതാണ് ഐ മീൻ കമ്പനി ആ എന്നാൽ നല്ല ക്വാളിറ്റിയൊക്കെ മീൻസ് എങ്ങനെയുണ്ട് അതിൻ്റെ വർക്കിംഗ് ഒക്കെ

എങ്ങനെയാണ് നിങ്ങൾ ആ ആ അതെയതെ ആ അതിൻ്റെ റേറ്റൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങ് അത് ഇരുപത്തഞ്ച് അല്ലേ അതേതാണ് ആ ആ ഓക്കെ ഇവിടെ നിന്ന് അവിടെ വന്ന് ഇതാക്കി തരുവോ ഫിറ്റൊക്കെ ചെയ്തു തരില്ലേ ഓക്കെ അപ്പോൾ എൻ്റെ വീട് കോങ്ങാട് ആ ആ ഓക്കെ പിന്നെ പിന്നെ ഇരുപത്തഞ്ചിൻ്റെ ഏതാണ് കമ്പനി പറഞ്ഞത് വേൾപൂൾ അപ്പോൾ അത് നോക്കാം അതെങ്ങനെയാണ് വാറൻ്റിയൊക്കെ എങ്ങനെയാണ് എത്ര വർഷം

ഓ ഈ സർവീസിങ്ങ് ഒക്കെ എങ്ങനെയാണ് വന്നു ഫ്രീ സർവീസൊക്കെ തരില്ലേ ആദ്യത്തെ വർഷം ആ ഓ

അത് എത്ര മന്ത്സിൻ്റെ ഇടയിലാണ് എങ്ങനെയാണ് ആ ഓ ആ ആ ആ

അതെ അപ്പോൾ എന്നാൽ അത് നോക്കാം അത് ഇത് ചെയ്തോളു അത് ബുക്ക് ചെയ്തോളു ഓ ജോത്സന ആ കോങ്ങാട് ആ എയിറ്റ് സീറോ സെവൻ ഫൈവ് ഫോർ വൺ വൺ ഫോർ സിക്സ് ഫോർ ഓ ആ കാർഡാണ് ഓക്കെ ഓക്കെ